ഹലോ സർ ഇത് പാസ്പോർട്ട് ഓഫീസ് അല്ലേ ആ സാർ ഒരു കാര്യം അറിയാനായിട്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോവാനിപ്പം രണ്ട് മാസത്തെ ലീവ് ലീവിന് ഞാൻ വന്നതാ അപ്പം പാസ്പോർട്ട് ലോക്കറ് ഇനി പോവുന്ന സ്ഥലത്തെ ഇതുംകൂടെ ഒന്ന് ആാഡാക്കേണ്ടതുണ്ടായിരുന്നു അതുപോലെത്തന്നെ പിന്നെ എൻ്റെ പേര് ആധാറിലെയും ഈ പാസ്പോർട്ടിലെയും പേര് ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം സാർ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുമോ അതോ അവിടെ വന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ ചെയ്താൽ തന്നെ എത്ര ആഴ്ചയോ മാസമോ അങ്ങനെ വരുമോ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇത് അതെ അപ്പം പിന്നെ ഇത് എങ്ങനാ ഫീസ് എങ്ങനെ ആവുന്നത് ആ അപ്പം പാസ്പോർട്ടും നമുക്ക് നിലവിലുള്ള പ്രൂഫോളുമായിട്ടൊന്ന് അയച്ച് തന്നാൽ മതിയല്ലേ ഓൺലൈൻ വഴി ഇപ്പം വരേണ്ടതായിട്ടില്ല ഒരു മാസം എടുക്കുമല്ലേ ഓ അപ്പം ആ നമ്പർ ഇത് തന്നെ ഈ നമ്പർ തന്നെ വെച്ചാൽ മതിയെ നമുക്ക് ഓഹോ ഹോ ഹോ അപ്പം ആധാറിൻ്റെ കോപ്പി വേണം പിന്നെ ഓ ഹൊ ഹൊ ആ ഓക്കെ ഓക്കെ സാർ അല്ല രണ്ട് മാസം ഉണ്ട് ലീവ് രണ്ട് മാസം ഉണ്ട് അപ്പം അതിനുള്ളിലിത് കറക്റ്റ് ആക്കിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഓൺലൈൻ വഴി അയക്കാം ഓക്കേ ഓക്കെ സാർ താങ്ക് യൂ